ഞാനീ നാട്ടില് പുതിയതാണ് അപ്പം എനിക്ക് എന്റെയൊരു ഇന്റെർവ്യുക്കു അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം ഇവിടുന്ന് ബസ്സിറങ്ങിട്ട് എങ്ങനെ പോകണം എന്ത് പോകണം എന്നറിയില്ല അപ്പൊൾ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇന്ന സ്ഥലത്താണ് പോകണ്ടത് അപ്പൊൾ എത്ര രൂപയാകും എത്ര മണി എത്ര സമയം കൊണ്ടവിടെ എത്തുമെന്ന് ചോദിച്ചു അപ്പൊൾ ആളു പറഞ്ഞു ഇത്ര രൂപയാകും എന്നു പറഞ്ഞു കയറി അവിടെ വേണമെങ്കിൽ ചുറ്റി വരാം വേണമെങ്കിൽ കൂട്ടി പറയാം പക്ഷെസ്ഥലത്തിറക്കി എന്നോട് പറഞ്ഞു ഇവിടുന്ന് കുറച്ചു മുമ്പോട്ട് പോയാൽ അവിടെ തന്നെയാണ് തിരിച്ചവിടുന്ന് ഇപ്പുറത്തെ സൈഡില് നില്കുയാണെങ്കിൽ ബസ്സുണ്ടാവും ഇത്ര സമയാകുമ്പോൾ ഇതൊക്കെ പറഞ്ഞു നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റം എത്ര പറഞ്ഞാലും എന്താ പറയുക മാന്യമായ പെരുമാറ്റം അഭിനന്ദിക്കുന്ന അർഹതയുള്ളൊരു മനുഷ്യനായിരുന്നു നമുക്ക് സന്തോഷവും നമ്മളൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ടുപോകുമ്പോൾ നമുക്കാരെങ്കിലും ഒരാള് തുണ നിന്ന് നമ്മളോട് ശരിയായ മാർഗം തരുമ്പോൾ നമുക്ക് വളരെ സന്തോഷം നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ വളരേ സന്തോഷം ഉണ്ട് ചേട്ടനോട് വളരെ നന്ദിയുണ്ട്